ഞാൻ മുമ്പേ ഒരു ഫോട്ടോഗ്രാഫി കോണ്ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അറിയാൻ പറ്റിയതെന്നു വെച്ചാൽ പിന്നെ ഫോട്ടോഗ്രഫി പഠിപ്പിക്കാൻ പറ്റില്ല നമ്മൾ സ്വന്തമായിട്ട് സ്വയം പഠിക്കാം ഇപ്പോൾ ഒരു ഫ്രെയിമ് കാണുമ്പം തന്നെ ഒരു ഒരു പ്രകൃതിയിനെ ഒരു എക്സാം പ്രകൃതി കാണുമ്പോൾ നമ്മൾ മുകളിലേക്ക് ജീവനുള്ളതായിട്ട് അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫിയിലൂടെ അങ്ങനെ അറിയാൻ പറ്റണം പ്രകൃതിയാണെങ്കിലും അല്ലെങ്കിൽ ചലിക്കുന്ന വസ്തുക്കളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും ഫോട്ടോഗ്രാഫി മറ്റവരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല എല്ലാവരും പറയുന്നതുപോലെ അതു പഠിച്ചെടുക്കണത് അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അത് അതിനുള്ളൊരു ഇതും വേണം നല്ല ക്യാമറയും വീഡിയോഗ്രാഫിയാണെങ്കിൽപ്പോലും നല്ലൊരു വീഡിയോ ഇത് വേണം അങ്ങനെയാണ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത് അതിൽ നിന്ന്